ഹലോ ക്യാബ് ഡ്രൈവർ അല്ലേ ആ ചേട്ടാ ഞാൻ ഇല്ലേ ഇപ്പോൾ ഒരു നാല് മണിയാകുമ്പോൾ കൂത്ത് പറമ്പിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ആ കുട്ടിയായിരുന്നേ അപ്പോൾ എന്താ അറിയുമോ എൻ്റെ ഒരു ഫ്രണ്ട് കതിരൂരുണ്ട് അപ്പോൾ നീ ഇങ്ങു വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നേ കുറേ കാലമായി ഞാൻ അവളെ കണ്ടിട്ട് അപ്പോൾ പെട്ടെന്ന് അവൾ വിളിച്ച നേരം ഞാൻ ചേട്ടൻ്റെ ബുക്ക് ചെയ്തത് ഓർക്കാണ്ട് അവളുടെ അടുത്തേക്ക് പോയി അപ്പം നോക്കുമ്പം ഞാൻ ഇപ്പം ഉള്ളത് കതിരൂരായിരുന്നു കുറേ കാലം കൂടിയിട്ട് അവളെ കണ്ടപ്പോൾ കുറേ നേരം സംസാരിച്ച് ഒക്കെ ഇരുന്നു അപ്പം നാല് മണിയായത് കാര്യം ഇപ്പോഴാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ചേട്ടൻ എന്നെ കാത്ത് അവിടെ നിൽക്കുകയായിരുന്നോ ആണല്ലേ എന്നാലില്ലേ ചേട്ടാ ഒരു കാര്യം ചെയ്യുമോ ഒന്ന് ഇവിടെ കതിരൂർ വരെ വരുമോ കതിരൂർ എത്തണ്ട അതിന് കുറച്ച് മുൻപേ മേലെ കതിരൂർ ആ ഒരു ഭാഗമെത്തുമ്പോഴത്തേക്കു അവിടെ ഒരു മറ്റേ സ്കൂൾ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗമില്ലേ അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ടാകും ഞാൻ അവിടെ സ്റ്റാൻഡിൽ ഉണ്ട് ചേട്ടൻ ഒന്ന് അങ്ങ് വരെ അവിടം വരെ വരാമോ അത് എൻ്റെ ഒരു ഫ്രണ്ട് അത്രയും കുറേ കാലമായി അവളെ കണ്ടിട്ട് ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവളെ വിളിച്ചാൽ എന്നാൽ പോകാം എന്ന് വിചാരിച്ചിട്ട് അന്നേരം നേരത്തെ ഞാൻ പോയതായിരുന്നു രണ്ട് മണിയായപ്പോൾ പോയതായിരുന്നു അപ്പം വേഗം കഴിയുമല്ലോ എന്ന് സംസാരിച്ചിട്ട് അപ്പാടെ തിരിച്ച് വരാമല്ലോ എന്ന രീതിയിലൊക്കെ ആയിരുന്നു അപ്പം നോക്കുമ്പോൾ ഉണ്ട് അവളോട് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല കുറേ നേരം ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും സമയം പോയി പോയി ചേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഇവിടെ മേലെ കതിരൂർ വന്നിട്ട് ഒന്ന് കൂട്ടുമോ എന്നെ സ്റ്റാൻഡിന് തൊട്ട് അടുത്തുള്ള പിന്നെ സ്റ്റാൻഡിൻ്റെ പുറത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇരിക്കാം ഞാൻ ആ അവിടെ തന്നെ ഇരിക്കും അപ്പോൾ അവിടേക്ക് വരുമ്പോൾ ചേട്ടനും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല അവിടെ നിന്ന് ആ ഒരു ട്രാഫിക്കിൻ്റെ അവിടെ നിന്ന് നമുക്ക് പോകാം വരുമല്ലേ ആ ഓക്കെ ഓക്കെ ശരി ചേട്ടാ എന്നാൽ താങ്ക് യൂ